മറ്റു സ്ഥലങ്ങളിൽ ചെരുപ്പുകളും വളകളുമാണ് നിർമ്മിക്കുന്നതെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഓൾറെഡി തന്നെ ഉള്ളൊരു കാര്യമാണ് ഖാദി അത് നേയ്ത്ത് ശാലകൾ നമ്മുടെ നാട്ടിലും ഉണ്ട് ഖാദീത്തുണി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹാൻഡ് ലൂം പരിപാടികളൊക്കെ അതൊക്കെ നമ്മുടെ കേരളത്തിൽ മുൻപേ തന്നെ ഉള്ളൊരു കാര്യങ്ങളാണ് അതും ഇപ്പോൾ ഉടനീളം നമ്മുടെ ഓരോരോ ടെക്സ്റ്റൈൽസിലും ഷോപ്പിലും അതു കൊടുത്തും ബാക്കിയുള്ളവർ അത് ഉടുക്കാറുമുണ്ട് ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ഒന്നാണ് അതിൽ നമ്മുടെ കേരളവും പിന്നിലൊന്നുമല്ല ആ കാര്യത്തിലും നമ്മുടെ കേരളത്തിൽ മുൻഗണനയുണ്ട് അതവർ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോരുന്ന ഒരു കാര്യമാണ്